ഇന്നത്തെ നമ്മുടെ ഈ കാലത്തെ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവർ പണ്ടത്തേക്കാലത്തെ കുട്ടികളെ കാട്ടിലും വളരെയധികം വേർപെട്ട് അതായത് വേർ വേറെ രീതിയിലാണ് പെരുമാറുന്നതും ചെയ്യുന്നതും ഒക്കെ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു അതായത് ഇന്നത്തെ കാലത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്കൊഴി ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ അവർ നേരെ ഒന്നല്ലെങ്കിൽ ടീ വി കാണുകാ ഫോൺ കാണുക ലാപ് ടോപ്പ് ടാബ്ലറ്റ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കാണുക ഇതാണ് അവരുടെ പരിപാടി ഇല്ലെങ്കിൽ ഉറങ്ങുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ പണ്ടത്തെ കാലത്തെ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ അവർ ഒന്നല്ലെങ്കിൽ ഒഴിവ് സമയം കിട്ടുമ്പോൾ വീട്ടിലിരിക്കാതെ വെളിയിൽ പോയി അവിടെ ഉള്ള കൂട്ടുകാരുമൊത്ത് കളിക്കുമായിരുന്നു ഗ്രൗണ്ടുകളിൽ പോയി അമ്പല ഗ്രൗണ്ടുകൾ ഉണ്ട് അല്ലാതെ സ്കൂൾ ഗ്രൗണ്ടുകളുണ്ട് പിന്നെ കൊളങ് കുളങ്ങളിൽ പോയി കളിക്കും പിന്നെന്താ അങ്ങനെ റോഡുകളിൽ കൂടി ചുമ്മാ നടക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൂടെയൊരു മാനസിക ഉല്ലാസം ലഭിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം അവരുടെ ശാരീരികമായിട്ടുള്ള എന്താ ശാരീരികമായിട്ടും അവർക്ക് അതുകൊണ്ട് നല്ല ഉപകാരങ്ങൾ കിട്ടുമായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നും ചെയ്യാതെ അനങ്ങാതെ അങ്ങനെയിരിക്കുന്നതിനേക്കാൾ വേർ വേറിട്ട രീതിയാണല്ലൊ അത് അതിലൂടെ അവർക്ക് ശാരീരികമായിട്ട് ഒരു ഉല്ലാസം ലഭിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവരെ കണ്ണിനും ഒക്കെ അത് നല്ലതായിരുന്നു ഫോണിൽ നോക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ കളിച്ച് ചിരിച്ച് നടക്കുന്നത് അപ്പോൾ പിന്നെ ആത്മബന്ധം സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരാത്മബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മാതാപിതാക്കളോട് സംസാരിക്കുക പഴയ കളിക്കുടുക്ക ബാലരമ പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുക പടങ്ങൾ വരക്കുക അല്ലെങ്കിൽ ചെടികളൊക്കെ നടുക അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ കുട്ടികളൊക്കെ ചെയ്തിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മാതാപിതാക്കളുമായിട്ടുള്ള എന്താ സംസാരം കുറയുന്നു മാതാപിതാക്കളും തിരക്കിലോട്ട് മാറുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധങ്ങൾ പോകുന്നു സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആവശ്യകത കുട്ടികൾക്ക് മനസ്സിലാകാതെയിരിക്കുന്നു ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നു ടീ വീ ഫോൺ അങ്ങനെ സോഷ്യൽ മീഡിയ എന്നൊരു ഇതിലേക്ക് അവർ ചുരുങ്ങുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതവരെ മാനസികമായും ശാരീരികമായും ബാധിക്കുന്നുണ്ട് എന്ന് കൂടി നമുക്ക് പറയാൻ കഴിയുന്നു അതായത് ഫോൺ കാണുന്നതിലൂടെ സിനിമകൾ കാണുന്നതിലൂടെ ഇന്നത്തെക്കാലത്തെ സിനിമയെന്ന് പറയുമ്പോൾ മൂന്ന് മൂന്നര മണിക്കൂറുള്ളതുണ്ട് ഒരു മണിക്കൂറുള്ളതുണ്ട് അങ്ങനെ പല തരത്തിൽ സിനിമകളുണ്ട് അപ്പോൾ ഇത് തുടർച്ചയായി കാണുകയും അതവരുടെ കണ്ണിനെയും തലയെയുമൊക്കെ മീൻസ് ശാരീരികമായി അവരെ ബാധിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം പഠനത്തിൽ പുറകോട്ട് വരികയും പിന്നെ ഗെയിമ്സിനൊക്കെ അഡിക്റ്റ് ആകുകയും അവരുടെ സമയം നഷ്ടപ്പെടുകയും പഠിക്കാൻ താല്പര്യമില്ലാതെ വരിക ദേഷ്യക്കൂടുതൽ അങ്ങനെയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ അപൂർവ്വങ്ങളിൽ അപൂർവ്വങ്ങളായ കുട്ടികൾ ഇപ്പോഴും ഉണ്ട് ആ പണ്ടത്തെ കുട്ടികളുടെ ശൈലി പിന്തുടരുന്നവർ അങ്ങനുള്ളവരെ കാണുവാൻ കുറവാണ് എന്നാലും അപൂർവ്വങ്ങളിലപൂർവ്വമായിട്ട് കുറച്ച് കുട്ടികൾക്ക് ഇന്നും നിലനിൽക്കുന്നുണ്ട് ആ ഒരു ശൈലിയെ പിന്തുടർന്ന് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെയൊക്കെ അത്യാവശ്യകത മനസ്സിലായിട്ടുള്ളവരായിരിക്കും അതോടൊപ്പം അവരുടെ വീടുകളിലും പ്രശ്നങ്ങളോ ഇല്ലാതെ സന്തോഷം ആയിരിക്കും ഉണ്ടാവുക